ഞങ്ങൾ കൂട്ടുകാരും ഒന്നിച്ചു ഒരു യാത്ര പോയ സമയത്ത് ഇടുക്കി ഭാഗത്താണ് പോയത് അവിടെ ഒക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മലയോര പ്രദേശമാണ് അപ്പോൾ അവിടെ കയറി പോണത് ഓഫ് റോഡ് പോലെയുള്ള പാതകളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ഓഫ് റോഡ് പോയ സമയത്ത് അവിടെ കുത്തനെ കിടക്കുന്ന ഒരു കയറ്റമാണ് ആ കയറ്റം കയറി ചെന്ന് അതായത് വണ്ടികളെല്ലാം നിരന്നു പോവുകയാണ് മുമ്പിലും പുറകിലുമായിട്ട് ഇങ്ങനെ അടുത്ത് അടുത്ത് പോവുകയാണ് ഏറ്റവും മുകളിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അവിടെ അവിടെ ഉള്ള ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം അവിടെ വന്യജീവികളൊക്കെ ഉണ്ടാകും എന്നു പറഞ്ഞു എങ്കിലും ഞങ്ങൾ അത്ര കരുതിയില്ല അവിടെ കയറ്റം കയറിച്ചെന്നു നിന്നത് ഒരു ആന അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് റോഡിൽ തടസ്സമായിട്ട് അത് വളരെ ഭയം തോന്നി അപ്പം ആ റോഡുകളൊക്കെ വളരെ ഗട്ടർ നിറഞ്ഞതും കല്ലുകളും കുഴികളുമൊക്കെ ആയിട്ടുള്ളതായിരുന്നു ഓഫ് റോഡ് ആകുമ്പം അറിയാമല്ലോ ആ റോഡിൽ കൂടി കയറ്റം കയറി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പുറകിൽ പുറകിൽ വണ്ടി വന്നു അത് പെട്ടെന്ന് എല്ലാ വണ്ടിയും കൂടെ നിർത്തിയപ്പോഴത്തേക്കും അതിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ശബ്ദം എല്ലാം കേട്ടിട്ട് ഈ ആന പെട്ടെന്ന് വെരണ്ട് ഓടുകയും ചെയ്തു അത് ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നില്ല അത് വളരെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ ആ പാതയിലൂടെ പിന്നെയും മുന്നോട്ട് പോയ സമയത്ത് ഈ മഴ ഒക്കെ പെയ്ത് ഇരിക്കുന്ന ഒരു സമയങ്ങളിലായിരുന്നു വണ്ടി വളരെ ഇതായിട്ടൊരു സൈഡിലേക്ക് തെന്നി മാറുകയും അത് വലിയ അപകടങ്ങൾ ഉണ്ടാകാതെ അതിൻ്റെ ഡ്രസിങ്ങൊക്കെ നമ്മൾ ഓഫ് റോഡ് പോകാനുള്ള ഡ്രസ്സിങ്ങും ജാക്കറ്റും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതു രക്ഷപ്പെട്ടു വലിയ മുറിവുകൾ അല്ലെങ്കിൽ ഒടിവുകളോ ഒന്നും സംഭവിക്കാതെ അസ്ഥികളൊന്നും ഒടിയാതെ അത് രക്ഷപ്പെട്ടു അത് ഞാൻ മറക്കാത്ത ഒരു അനുഭവമാണ് അതുപോലെ ഈ നിരവധി അവിടെ യാത്ര ചെയ്തപ്പോൾ എല്ലാം ഇതേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അവിടുത്തെ റോഡുകളുടെ ഒരു രീതി അതാണ് അതുപോലെ അവിടത്തെ മണ്ണ് ഈ വെള്ളം വീണ് കുഴഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സ്ലിപ്പാവുന്ന ടൈപ്പിലുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു യാത്ര വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു യാത്രയാണ് ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഉണ്ടായത് അവിടത്തെ പാതകളെല്ലാം അങ്ങനെ ഒരു പ്രശ്നമായത് കൊണ്ടാണ് ആ കാലാവസ്ഥയിലും കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ ആ സമയങ്ങളിൽ നേരിട്ടത് അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ജീവിതത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചതിൽ പിന്നെ അതുപോലെ തന്നെ അത് ഒരു ഞങ്ങൾ ഒരു ഒരാഴ്ചയോളം ആ യാത്ര നീണ്ടു നിന്നു കേരളത്തിലും അതുപോലെ തമിഴ്നാട് അതിർത്തികളിലും ഒക്കെ പോയി നമുക്ക് യാത്ര ചെയ്യാനിടയായി അവിടെയൊക്കെ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനം മൂലം നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മഴയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ബൈക്കിലായതു കൊണ്ട് അത് പക്ഷേ അതിനെ വെല്ലുവിളിച്ച് നമ്മൾ മുന്നോട്ടു പോകുമ്പോഴാണ് നമ്മുടെ യാത്രയുടെ യഥാർത്ഥമായ ഒരു ആസ്വാദനം നമുക്ക് കിട്ടുന്നത് എന്ത് സാഹചര്യങ്ങളെയും നമ്മൾ പിൻതാണ്ടി കൊണ്ട് മുന്നോട്ടു പോവുക എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഏതൊരു യാത്രികൻ്റെയും സാഹസികമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഏതൊരു വെല്ലുവിളിയെയും നമ്മൾ സ്വീകരിക്കുക അത് മുന്നോട്ടു തന്നെ പോവുക അതാണ് എൻ്റെ ജീവിതത്തിൽ ബൈക്കിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും